കേരളത്തിലെ കൃഷി ഒരു സുപ്രധാന മേഖലയാണ് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കേരളം ഒരു പച്ചപ്പ് വൈവിധ്യമാർന്ന സ്ഥലമാണ് പിന്നെ ധാരാളം വൈവിധ്യമാർന്ന വിളകളാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന കൃഷി ഇനങ്ങളാണ് അരി തേങ്ങ തേയില കാപ്പി അപ്പോൾ പ്രകൃതിദത്ത വിള വിളകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്ര കൃഷിയിലെ കൃഷിയിലെ പ്രകൃതിദത്ത വിളകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് കൃഷിയിൽ സംസ്ഥാനത്തിലെ സമ്പദ് വ്യവസ്ഥ കൃഷിയെ ആശ്രയിക്കുന്നു പ്രധാന തൊഴിൽ ജനങ്ങളുടെ അമ്പത് ശതമാനം കൃഷിയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നത് കൃഷി ഇടങ്ങളിലാണ് പിന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷിയാണ് ഉയർന്ന ജന സാന്ദ്രത കൃഷിയെ പരിമിതപ്പെടുത്തുന്നു അതായത് ജന സാന്ദ്രത കൂടിയതിൽ കൃഷിചെയ്യാനുള്ള സ്ഥലമൊന്നും കിട്ടുന്നില്ല അപ്പം നമുക്ക് ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ കുറഞ്ഞ് വരുന്നു പിന്നെ ഭക്ഷണ ദാരിദ്ര്യമുണ്ടാകുന്നു അപ്പം ജനസാന്ദ്രത പിന്നെ വെള്ളപ്പൊക്കം പിന്നെ ഇതൊക്കെ വിള നാശത്തിന് കാരണമാകുന്നു വിളവ് വർദ്ധിപ്പിക്കാൻ ജൈവ കൃഷിയായ ജൈവ കൃഷി രീതി സ്വീകരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ് ന കേരളത്തിൻ്റെ നെല്ലിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ തെങ്ങ് ധാരാളം കൃഷി ചെയ്യുന്നത് തെങ്ങാണ് ധാരാളം നാളികേരം ലഭിക്കുന്നത് കേരളത്തിലാണ് നാളികേര വികസന ബോർഡ് കോഴിക്കോടാണ് പിന്നെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ആണ് ഏലം ഗവേഷണ കേന്ദ്രം പന്നിയൂർ ആണ് പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്ന് പറയുന്നത് ഏലമാണ് ചന്ദന മരങ്ങളുടെ നാട് അല്ലെങ്കിൽ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് തോട്ട വിള ഗവേഷണ കേന്ദ്രം സ്ഥിതിചെയ്യുന്നത് കാസർഗോഡാണ് പ്രധാനമായും താഴ്ന്ന പ്രദേശമാണ് കൃഷി ചെയ്യുന്നത് നവീകരണത്തിന് സാധ്യത നവീകരണത്തിന് സാധ്യതാ മേഖല കൂടി കൃഷിക്കുണ്ട് കുറേ തരം കൃഷി രീതികൾ നാട്ടിലുണ്ട് ഇപ്പം നമ്മള നാട്ടിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇറങ്ങിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് ആണ് കൃഷി ചെയ്യുന്നത് നമുക്ക് വന്ന് വാഴ പിന്നെ അങ്ങനത്തെ വാഴ വാഴയ്ക്കുള്ള കുണ്ട് കുഴിക്കുന്നത് വാഴ മരം നടുന്നതെല്ലാം തൊഴിലുറപ്പ് രീതിയിലാണ് അവർക്ക് പഞ്ചായത്താണ് ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കൊക്കെ ഉപകാരപ്പെടും പെട്ടെന്നൊരു കറിയുടെ ആവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അടുത്ത് നമ്മള വീട്ടിൻ്റെ അടുത്തുതന്നെ പോയിട്ട് കറിക്ക് വേണ്ടത് നമുക്ക് എടുക്കാം പിന്നെ ഇപ്പം കൃഷി ഇതാ കൃഷി എന്ന് പറയുന്നത് മെയിൻ കേരളത്തിലുള്ളത് നെല്ലും തെങ്ങും ഇപ്പം കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടല്ലേ കൃഷി ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് അതായത് കൃഷി ചെയ്താൽ ആ ഇവിടെ തമിഴ് നാടിൽ നിന്നാണ് അധികം കൃഷി ചെയ്യുന്നത് കേരളത്തിലല്ലേ കൃഷി കുറേ കൂടെ എളുപ്പം കുരുമുളകും അങ്ങനെ കുരുമുളക് മുമ്പ് കേരളത്തിലു നല്ലവണ്ണം ഉൽപാദിച്ച് കൊണ്ടേയിപ്പം കുരുമുളക് നല്ലവണ്ണം ഉൽപാദിക്കുന്നത് കർണ്ണാടകയിലാണ് കേരളം രണ്ടാം സ്ഥാനത്ത് എത്തിനി പിന്നെ ഇത് കൃഷി ഇല്ലെങ്കിൽ തെറ്റ് വന്നെങ്കിൽ നമുക്കൊന്നുമില്ല കൃഷി ഉണ്ടെങ്കിലേ നമുക്ക് ആഹാര വിഭവങ്ങൾ അങ്ങനത്തെ എല്ലാം കിട്ടൂ അത്രെ കൃഷിയില്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ നം മുമ്പത്തെ സമുദായത്തിന് കൃഷി കൃഷീനെ കൃഷീനെ അപേക്ഷിച്ച് കുറേ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്ത് ഇപ്പോഴത്തെ സമുദായം കൃഷിയിൽ കുറേ പ്രോബ്ലെംസ് ഫേസ് ആക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിളവ് വർദ്ധിക്കാൻ ജൈവ കൃഷി സ്വീകരിക്കുന്ന കർഷകനെ നാം പ്രോത്സാഹിപ്പിക്കണം കേരളത്തിൻ്റെ പ്രധാന കൃഷി എന്നറിയപ്പെട്ടുന്നത് നെല്ല് നെല്ലെന്ന് പറയുന്നത് നെല്ല് കുട്ടനാട് കുട്ടനാട് പിന്നെ പാലക്കാട് ഇതൊക്കെ നെല്ലിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ആ നെല്ല് ഗവേഷണ കേന്ദ്രം കേരളത്തിലെ പ്രധാനമായിട്ട് നെല്ല് ഗവേഷണ കേന്ദ്രം ഉണ്ട് പാട്ടാമ്പിയിലെല്ലാം അത് മെയിൻ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് പിന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് ക കരിമുണ്ടനെന്ന് അറിയപ്പെടുന്നതൊക്കെയാണ് കുരുമുളക് അപ്പോൾ കൃഷിയില്ലെങ്കിൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ദാരിദ്ര്യം സംഭവിക്കും കൃഷിയുണ്ടെങ്കിലേ നമുക്ക് ഭക്ഷണത്തിന് ദാരിദ്ര്യം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ അരി തേങ്ങ തേയില കാപ്പി ഇതൊക്കെ കൃഷിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രകൃതിദത്ത വിളകൾ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കും സാങ്കേതിക വിദ്യ